കായികം തൊഴിലാക്കിയ ആരെങ്കിലും അറിയാമോ എന്ന ചോദ്യത്തിന് പ്രശസ്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ ചോദ്യത്തിന് അറിയാം എന്നല്ലാതെ ആർക്കും മറുപടി പറയാനായിട്ടുണ്ടാവില്ല കാരണം നമുക്ക് ചിന്തിച്ചാൽത്തന്നറിയാം അല്ലെങ്കിൽ നമ്മള് എന്നും സ്ക്കൂളിൻ്റെ സ്ക്കൂളിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളാന്നുണ്ടെങ്കിലും അതുപോലെത്തന്നെ അവിടത്തെ എല്ലാ ടീച്ചേഴ്സിനെ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം ടീച്ചേഴ്സൊക്കെ കായികം തൊഴിലാക്കി മാറ്റിയ ടീച്ചേഴ്സാണ് അവർക്ക് അതിനുള്ള സാലറിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട് കായികം തൊഴിലാക്കി മാറ്റിക്കഴിഞ്ഞാൽ പല അനുഭൂതികളുമുണ്ട് അവരുടെ കായികരംഗം വർദ്ധിപ്പിക്കാം അതുപോലെ അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം അങ്ങനെ പല പല അച്ചീവ്മെൻ്റ്സും ഇതിലുണ്ട് സ്പോർട്സില് കുട്ടികള് പങ്കെടുക്കാറുണ്ടോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇല്ലാന്നുള്ള ഉത്തരത്തിനും പ്രശസ്തിയുണ്ട് എന്നാൽ ഉണ്ട് എന്നുള്ള ഉത്തരത്തിനും പ്രശസ്തി പ്രശസ്തിയുണ്ട് കാരണം പണ്ടായിരുന്നു ഈ കായികം അല്ലെങ്കിൽ സ്പോർട്സിന് വളരേ പ്രധാനീയമായി കുട്ടികളെലാം പങ്കെടുക്കാറുള്ളത് കാരണം മുൻക്കഴിഞ്ഞ ജനറേഷൻസില് കായികം സ്പോർട്സിലൊക്കെ ആകെ ഒരു തരം മത്സരവും അല്ലെങ്കിൽ രണ്ടിലധികം മത്സരങ്ങളൊന്നും അങ്ങിനെ ഉണ്ടായതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്നാൽ ഇപ്പോഴുള്ള ഓരോ കായിക മത്സരങ്ങളെന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പ് വെയിസായിട്ടും ഓരോ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ചും നമുക്ക് വേണമെങ്കിൽ സ്പോർട്സ് രംഗത്ത് നമുക്ക് അവരോട് പറയാം നമ്മുടെ ഇഷ്ടങ്ങൾ അതിനനുസരിച്ച് സ്ക്കൂളുകള് കായികരംഗത്ത് ഓരോ ഗെയിംസൊക്കെ ഇറക്കുന്നതാണ് ഈ ഒരു സ്പോർട്സിനിപ്പോൾ കൂടുതലായി കണ്ടെത്തുന്നത് എൻജോയ്മെൻസാണ് സ്ക്കൂളിലെ സ്പോർട്സിൻ്റെ കാര്യത്തിലാണെങ്കി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എൻജോയ്മെൻ്റ് എന്നുള്ളൊരു രീതിയ്ക്കാണ് കായിക രംഗത്ത് മത്സരിക്കുന്നതും എന്നാൽ അവരറിയാതെത്തന്നെ അവർക്ക് അവര് ഉള്ളില് കായികരംഗത്തിനായിട്ടുള്ള ഓരോ പിന്നെ അച്ചീവ്മെൻ്റ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അതുപോലെത്തന്നെ അവരറിയാതെ അവർക്കൊരു കഴിവുണ്ടെന്ന് അവർ മനസിലാക്കുന്നു ആ ഒരു കാര്യം മുൻപോട്ടുള്ള അവരുടെ ജീവിതത്തിൽ അതൊരു തൊഴിലാക്കി മാറ്റാനുള്ള അവസരങ്ങൾ അവര് ഒരുക്കുന്നുണ്ട് ടീച്ചേഴ്സായാലും എനിക്ക് തോന്നുന്നു ഹിസ്റ്ററി പഠിപ്പിക്കുന്നതിലായാലും അതുപോലെത്തന്നെ ജോഗ്രഫി പഠിപ്പിക്കുന്നതിലായാലും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കായികരംഗത്താണ് വീക്കില് ഓരോ പ്രാക്റ്റീസും കാര്യങ്ങളും അത് സബ്ജില്ലയില് പോവുകയും ജില്ലയിലേക്ക് മാറുകയും പിന്നെ സ്റ്റേറ്റ് നാഷണൽ അങ്ങനെ കുട്ടികൾ വർദ്ധിച്ച് വരികയാണ് അവരുടെ അച്ചീവ്മെൻ്റ്സ് കൂടുകയാണ്